ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു നെക്ലേസ് വാങ്ങിച്ചു നല്ല നെക്ലേസായിരുന്നു ഒരുപാടെനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഭംഗി കണ്ട് എടുത്തതാണ് നല്ല ഒരു നെക്ലേസാണ് അത് ഒരു യൂസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പഴേക്ക് എനിക്ക് ഒരുപാടിഷ്ടപ്പെട്ടു